ബൈക്കോടിക്കുമ്പോൾ ഞാനെല്ലാ കാര്യങ്ങളുംതന്നെ ശ്രദ്ധിക്കാറുണ്ട് മെയ്നായിട്ട് ഓവർ സ്പീഡെടുക്കാറില്ല യാത്ര ചെയ്യുമ്പോഴാണേപ്പോലും വണ്ടിയുടെ എല്ലാ മേയ്ൻ്റെനൻസും രീതികളും നോക്കിയാണ് ഞാൻ വാഹനം ഓടിക്കുന്നത് ഓടിക്കുമ്പോഴെന്നുപറഞ്ഞാല് ബ്രേക്കിങ്ങായാലും ബ്രേക്ക്പരമായിട്ടാണേലും വണ്ടിയുടെ എഞ്ചിൻപരമായ കമ്പ്ലേയ്ന്റുകളാണേപ്പോലും എല്ലാം കൃത്യമായി നോക്കി ചെക്ക് ചെയ്തതിനുശേഷം മാത്രമേ ഞാൻ വാഹനമോടിക്കാറുള്ളു വാഹനമോടിക്കുമ്പോൾ ഞാനേറ്റവും നല്ല സുരക്ഷിതമായ രീതിയിൽ മാത്രമേ വാഹനമോടിക്കുകയുള്ളു ഓവർ സ്പീഡെടുക്കാറില്ല എങ്കിലും മീഡിയം സ്പീഡിൽ മാത്രമേ ഞാൻ വാഹനം ഓടിക്കുകയുള്ളൂ വാഹനമോടിക്കുമ്പോള് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്പീഡ് സ്പീഡും ബ്രേക്കും ബ്രേക്ക് വണ്ടിയുടെ എഞ്ചിൻപരമായ കാര്യങ്ങള് വണ്ടിയുടെ മെയിൻ്റനൻസ് കാര്യങ്ങള് അതൊക്കെ ശ്രദ്ധിച്ച് വാഹനമോടിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവൻ്റെ സുരക്ഷയ്ക്കും അതൊരു മുൻകരുതലാണ് നമ്മൾ വാഹനമോടിക്കുമ്പോള് നമ്മുടെ കയ്യില് എപ്പോഴുംതന്നെ വാഹനത്തിൻ്റെ സർട്ടിഫിക്കറ്റുകൾ എല്ലാംതന്നെ കയ്യിൽ കാണണം കാരണം എപ്പോഴാണ് എന്താണ് ആവശ്യം വരിക എന്നു പറയാന് പറ്റില്ല കാരണം അതുവഴി വണ്ടിയുടെ ആർ സി ബുക്ക് പൊലൂഷൻ ഇൻഷുറൻസ് അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റിനു വണ്ടിയുടെ പേപ്പറുകൾ മേയ്നായിട്ടുള്ള പേപ്പറുകളെല്ലാംതന്നെ കയ്യിൽ കരുതിയില്ലെങ്കിൽ അതു പല പ്രശ്നങ്ങൾക്കും കാരണമാവാം കാരണങ്ങളാകുന്നുണ്ട് അത് നമ്മൾ ഇത് ഗതാഗത നിയമം ലംഘിക്കുന്നതിനു നമ്മളതൊരു വഴിയൊരുക്കുകയാണ് നമ്മളതു വഴി ചെയ്യുന്നത് അങ്ങനെ വരുമ്പോള് നമ്മൾ പൊതു സമൂഹത്തോടു ചെയ്യുന്നൊരു തെറ്റാണ് ഈ ഗതാഗത നിയമത്തെ നമ്മൾ ലംഘിക്കുകയും ചെയ്യുമ്പോള് ഉണ്ടാകുന്നത് പൊതു സമൂഹത്തിൽ ഗതാഗത നിയമം പാലിക്കുക എന്നതാണ് ഏറ്റവും നല്ലൊരു മാർഗ്ഗം വാഹനമോടിക്കുമ്പോഴും കയ്യിൽ രേഖകളും കരുതുക